ഹലോ അടുത്ത ആഴ്ച്ച അതായത് ഒരു ഏപ്രിൽ പത്താം തിയതി ആയിട്ട് വരും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പാർട്ടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പം അന്നത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം വേണ്ടിവന്നിരുന്നു അപ്പോൾ ഒരു നൂറ് പേരുണ്ടാവും നൂറ് പേർക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമോ നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്തൊക്കെയാണ് അതിലെ വിഭവങ്ങളെന്ന് ഒന്ന് പറഞ്ഞ് തരാമോ ഓ അങ്ങനെ ആണല്ലേ അങ്ങാനെ ആണെങ്കിൽ എനിക്ക് ബിരിയാണി വേണം ആ കോഴി ബിരിയാണി അതുപോലെ ഫ്രൈഡ് റൈസ് വേണം കുറച്ചു മന്തി വേണം പിന്നെ അതിലേക്ക് വേണ്ട പൊരികളൊക്കെ വേണം പിന്നെ ഡെസേർട്ട് ജ്യൂസ് ഒക്കെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ വേണം അപ്പം അത് നിങ്ങൾക്ക് ഈ ഏപ്രിൽ പത്താം തീയതി എത്ര സമയാകുമ്പോഴത്തേക്ക് എത്തിക്കാൻ പറ്റും അത് എങ്ങനെ ഒക്കെ ചെയ്ത് തരാം എത്ര സമയത്ത് എത്തിക്കാം എങ്ങനെ നിങ്ങളുടെ വിലകൾ എത്ര രൂപ വരും അത് ഞങ്ങൾക്ക് കഴിവതും നിങ്ങൾ എറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്തു തരണം പൈസ നമ്മൾക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്ത് തരുമോ സാധനങ്ങളൊക്കെ നൂറു പേർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചായി കുറയരുത് നൂറ് പേർക്കെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നൂറ് പേർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കണം അപ്പോൾ ഏപ്രിൽ പത്താം തീയതിക്കേക്ക് ആ ഒരു പതിനൊന്ന് മണി ആവുമ്പഴേക്കും എത്തിക്കും അല്ലെ ആ ആയിക്കോട്ടെ ഓക്കേ